ആരോഗ്യമുള്ള മൃഗത്തിനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും തിരിച്ചറിയാൻ കുറേ എളുപ്പ വഴികൾ ഉണ്ട് അതിൽ ഒന്നാണ് മൃഗങ്ങൾ നല്ല ഉത്സാഹത്തോടെ നല്ല രീതിയിലാണ് നടക്കുക എല്ലാ ഉത്സാഹത്തോടെയാണ് ചെയ്യുക നല്ല എനർജെറ്റിക്ക് ആയിരിക്കും നല്ലോണം ഭക്ഷണമൊക്കെ കഴിക്കും ആശയായ മൃഗങ്ങൾ ആണെങ്കിൽ അധികം ഉൽസാഹത്തോടെയൊന്നും നടക്കുകയില്ല ഒരേ സ്ഥലത്ത് കിടപ്പായിരിക്കും ഭക്ഷണമൊന്നും അധികം കഴിക്കാതിരിക്കും നമ്മൾ എപ്പോഴും നല്ല ഉത്സാഹത്തോടെ അല്ലേ മൃഗങ്ങളെ വേണം തിരഞ്ഞെടുക്കാൻ ഇതിന് എളുപ്പ വഴിയാണ് ഇതൊക്കെ ആരുടെയെങ്കിലും ഉപദേശം കേൾക്കണമെങ്കിൽ കേൾക്കാം അതായിരിക്കും നല്ലത് ഇതിനെ പറ്റി അറിവുള്ള ആരെങ്കിലും ആരെങ്കിലും ചോദിക്കുന്നതാണ് നല്ലത് അതുവരെ നല്ലോണം എനർജെറ്റിക് ആയിരിക്കും മൃഗങ്ങൾ നല്ല മൃഗങ്ങളെ ചൂസ് ചെയ്യുക അതേപോലെ നല്ല എനർജെറ്റിക്ക് ആയിരിക്കുന്ന ആരോഗ്യമാരായ മൃഗങ്ങള നോക്കിയെടുക്കുക ഇവിടെ നല്ല ഉത്സാഹത്തോടെ ഇരിക്കുകയും ചെയ്യും നമ്മളോട് പെട്ടെന്ന് ഇണങ്ങുകയും നമ്മളോട് കളിക്കുകയുമൊക്കെ ചെയ്യും ഇങ്ങനെ വേണം നമ്മൾ മൃഗത്തിനെ തിരിഞ്ഞെടുക്കാൻ ഓക്കെ ഓക്കെ